ഇപ്പം കോഴിക്കോട് ജില്ലയിൽ പ്രധാനമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റി ആണല്ലോ നമുക്ക് എന്താ പറയുക കോഴിക്കോടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഇഷ്ടം പോലെ സ്കൂളുകൾ സ്കൂളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃത വിദ്യാലയം പിന്നെ അങ്ങനെ പലതരം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ പലതരം സ്കൂളുകൾ കാര്യങ്ങൾ ഒക്കെ നമ്മുടെ എന്താ പറയുക കോഴിക്കോടുണ്ട് അപ്പം അവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വിദ്യഭ്യാസവും കാര്യങ്ങളൊക്കെ എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടുന്നുമുണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ അവിടെത്തന്നെ നമുക്ക് ചെയ്യാവുന്നതുമാണ് കാരണം വല്ലിയൊരു സിറ്റിയിൽ എന്തായാലും ഏകദേശം ഒരുവിധപ്പെട്ട എല്ലാ ജോലികളും നമുക്ക് കോഴിക്കോട് ഉണ്ട് അപ്പോൾ നമുക്കവിടെ നിന്ന് തന്നെ പഠിക്കുകയും ചെയ്യാം അവിടെത്തന്നെ നമുക്ക് ജോലിയും ചെയ്യാം അങ്ങൻനത്തെ കാര്യങ്ങളൊക്കെ അവിടെത്തന്നെ നടക്കും പിന്നെ പലതരം സർവകലാശാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കോളേജുകൾ അപ്പം അവിടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് തൊഴിൽ അധിഷ്ഠിത പരിശീലനങ്ങളൊക്കെ കൂടുതൽ നമുക്ക് അവിടെ നിന്നൊക്കെ തന്നെ കിട്ടും പക്ഷെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ് കാര്യങ്ങളൊക്കെ കൂടുന്നു കൂടുതലാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാം പ്രൊഫഷണൽ കോളേജുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോൾ അവിടെ ഫീസുകളും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അങ്ങനെയൊക്കെയാണ് വേണമെങ്കിൽ പറയാം